എൻ്റെ പ്രദേശത്ത് എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് ബി ജെ പി അങ്ങനെ എല്ലാതരത്തിലുള്ള പാർട്ടികളും കാര്യങ്ങളും ഉണ്ട് അവയ്ക്കുണ്ടായ പരിവർത്തനങ്ങൾ എന്നുപറയുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അതിന് അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ഇവയെല്ലാം കൂടുതലും പ്രവർത്തിക്കുന്നത് എൽ ഡി എഫ് ആണ് നമ്മുടെ ഇപ്പത്തെ സർക്കാർ എന്ന് പറയണത് എൽ ഡി എഫ് സർക്കാർ ആണ് അപ്പോ എൽ ഡി എഫ് സർക്കാർ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ലൈഫ് മിഷൻ ആർദ്രം മിഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണ എണ്ണാവുന്നതിൽ അപ്പുറമുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളും എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവയൊക്കെ രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒക്കെയാണ് ഇതെല്ലാം രൂപീകൃതമായത് എൽഡിഎഫിലെ തന്നെ ഏറ്റവും ഒരു പ്രമുഖ നേതാവായി നമുക്കറിയാം ചെഗുവേര അദ്ദേഹത്തിൽ നിന്നാണ് ആ ഒരു പാർട്ടിയുടെ പിന്നൊടെ പിന്നീടുള്ള രൂപം തന്നെ കൊണ്ട രൂപം നിലനിന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ എൽഡിഎഫിൻ്റെ എൽഡിഎഫ് സർക്കാരിൻ്റെ ഫൗണ്ടർ ഒക്കെ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ആണ് അതുപോലെത്തന്നെ യുഡിഎഫിൻറെ ആയിക്കോട്ടെ ഫൗണ്ടർ കെ കരുണാകരനാണ് അങ്ങനെ ഈ പാർട്ടികളൊക്കെ രൂപീകരിച്ചത് അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ ഒക്കെ രൂപീകരണം മൂലം സംസ്ഥാനത്തിന് ഒരുപാട് വികസനവും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്